അങ്ങനെ ഒരു ബൈക്കിങ്ങ് പരുപാടിക്ക് ആയിട്ട് ഞാൻ ഒരു വട്ടം എറണാകുളത്ത് പോയിരുന്നു നമ്മുടെ ബജാജ് എന്ന ഡീലറിൻ്റെ ഒരു ബൈക്ക് ഷോ അവിടുണ്ടായി അപ്പോള് അങ്ങനെ അതിനെ അത് പങ്കെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്റെ വീട്ടില്നിന്നു പോയിരുന്നു അപ്പോള് അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസായിരുന്നു ഇവിടെ പല പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ടും കുറേ ഉണ്ടായിരുന്നു അവടെ പല പല ബൈക്കുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നമുക്കിഷ്ടമുള്ള ബൈക്കുകൾ നമുക്ക് എത്രവേണേലും ഓടിക്കാനും എല്ലാത്തിനുമുള്ള സാഹചര്യം അവിടെ ഒരുക്കിയിരുന്നു അതു മാത്രമല്ല എന്റെ സ്റ്റണ്ട് ഷോകളുടെ ബൈക്ക് എക്സ്പേർട്സ് ബൈക്കിൽ പല പല ആകർഷകമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതു മാത്രമല്ലാണ്ട് റെയ്സുകൾ പോലെയും നടത്തിയിരുന്നു അവർ നമുക്ക് നമ്മടെ കൂട്ടുകാരുമായിട്ട് ഒരു ചെറിയ റെയ്സ് പോലെ നടത്തി അതിൽ വിജയിക്കുന്നവർക്ക് അവർ ആകർഷകമായ പ്രൈസുകൾ നൽകിയിരുന്നു കൊച്ച് കൊച്ച് റെയ്സ് പോലെ നമ്മൾ രണ്ട് നമ്മളും നമ്മടെ കൂട്ടുകാരും തമ്മിൽ ഒരു ചെറിയ ദൂരത്തേക്ക് ബൈക്ക് ഓടിച്ച് അതിൽ ആരാദ്യം വരുന്നു അവർക്കാകർഷകമായ സമ്മാനങ്ങൾ നൽകിയിരുന്നു സമ്മാനങ്ങളിൽ വാച്ച് ഹെൽമെറ്റ് തൊപ്പി പേന എന്നിവ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ ഞാനും എന്റൊരു കൂട്ടുകാരനും ഇതേപോലൊരു റെയ്സ് വെച്ചു ഞാനതിൽ ജയിക്കാൻ പറ്റി അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ അങ്ങനെ കിട്ടിയിരുന്നു ഇപ്പോൾ ആ ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോഴും എനിക്ക് ഈ ഓർമകളാണ് ആദ്യം വരിക ആ ഗിഫ്റ്റുകളൊക്കെ ആ തൊപ്പിയൊക്കെ ഇപ്പഴും ഉപയോഗിക്കുമ്പോൾ ഈ ഓർമ്മകൾ ആദ്യം എനിക്ക് വരും വളരെ നല്ലൊരനുഭവം ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ഇത്രയും നല്ലൊരു ഡീലറാണ് ബജാജെന്ന് എനിക്കന്നാണ് അപ്പോള് മനസിലായത് ഇത്രയും നല്ല രീതിയിൽ അവരുടെ കസ്റ്റമേഴ്സായിട്ട് അവർക്ക് സംസാരിക്കാനും അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും പറ്റുമെന്ന് എനിക്ക് അന്ന് മനസിലായി